ഒര് ക്ലാസ്സിക്കൽ ഗാനത്തിന് നൃത്തം ചെയ്യുന്നതില് ഒരു കലാകാരൻ്റെ ശാരീരികം എത്രത്തോളം പ്രധാനം എന്ന് പറഞ്ഞാൽ വളരെയധികം പ്രധാനമാണ് ഒര് ക്ലാസിക്കലാണെന്ന് പറയുമ്പോൾ നമുക്ക് സിനിമാറ്റിക് ഡാൻസ് പോലെ അല്ല ക്ലാസിക്കല് ക്ലാസിക്കല് എന്ന് പറഞ്ഞാൽ നമുക്ക് അത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റ് നമ്മള് ഒരു പോയി പഠിച്ച് സമയം എടുക്കും പഠിക്കാനും കാര്യങ്ങളൊക്കെ സമയം എടുക്കും അതിന് അതിൻ്റേതായ രീതികൾ ഉണ്ട് ശൈലി ഉണ്ട് അതിൻ്റേതായ രീതി ഉണ്ട് അപ്പം നമ്മളത് അതിൻ്റൊര് റൂള് ഉണ്ട് ആ റൂള് ബേസ് ചെയ്തിട്ട് വേണം നമ്മള് ഓരോ ഡാൻസ് മുദ്ര അങ്ങനെ ഒക്കെ ഓരോ മുദ്രകള് കാര്യങ്ങൾ ഒക്കെ ഉണ്ട് അർദ്ധ മുദ്ര പതാക തൃപതാക അർദ്ധ പതാകന്നൊക്കെ പറഞ്ഞ അങ്ങനെ കുറേ കുറേ കാര്യങ്ങൾ ഒക്കെ ഉണ്ട് അപ്പോൾ ശാ അതില് ശാരീരിക കഴിവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് വളരെയധികം നന്നായിട്ട് തന്നെ വേണം അതേപോലെ ഇതെങ്ങനെ മെച്ചപ്പെടുത്താമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രാക്ടീസ് നിരന്തരമായിട്ടുള്ള പ്രാക്ടീസ് പ്രാക്ടീസ് കാരണം നമുക്കിത് നമ്മളിത് മെച്ചപ്പെടുത്താൻ നല്ല സാഹായിക്കും നല്ല രീതിയിലുള്ള പ്രാക്ടീസ് ഉണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയില് നമ്മുടെ ശാരീരിക കഴിവ് എത്ര നന്നേ രീതിക്ക് തന്നെ മെച്ചപ്പെടുത്താൻ പറ്റും പ്രാക്ടീസ് ഉണ്ടെങ്കിൽ ഒരു കുഴപ്പവും ഇല്ല നമ്മള് നല്ല കറക്റ്റായിട്ടുള്ള ഒരു ഡയറ്റ് കാര്യങ്ങൾ ഒക്കെ മെയിൻ്റെയിൻ ചെയ്ത് പ്രാക്ടീസ് പ്രോപ്പറായ പ്രാക്ടീസും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കിത് ഇംപ്രൂവ് ചെയ്തെടുക്കാൻ പറ്റും നമ്മളുടെ ഈ ഇത്